പതിനാല് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഇരുപത് ആറ് രണ്ടായിരത്തി ഏഴ് മുപ്പത് രണ്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ആറ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി എട്ട്